കല്യാണം മാമോദീസ അതുപോലുള്ള ചടങ്ങുകളിലൊക്കെ വെള്ളം കൂടുതൽ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് പ്ലാസ്റ്റിക് കുപ്പികളില് എല്ലാവർക്കും കൊടുക്കുകയാണ് പക്ഷെ അത് പ്ലാസ്റ്റിക് നമ്മള് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞും അത് നമ്മള് ഭൂമിക്ക് ദോഷം ചെയ്യുകയാണ് പക്ഷെ ഇപ്പോള് അതിൽ നല്ലതായിട്ട് ഞങ്ങള് എസ് എച്ച് ജിയിൽ എടുത്ത ഒരു തീരുമാനം അനുസരിച്ച് ഞങ്ങളിപ്പോൾ പ്ലാസ്റ്റിക് അധികം ഉപയോഗിക്കാതെ നമ്മള് വെള്ളം വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് പതിമുഖമോ ജീരകമോ എന്തെങ്കിലും ഇട്ട് നമുക്ക് ആരോഗ്യത്തിന് പറ്റുന്ന രീതിയില് എന്തെങ്കിലുമിട്ട് തിളപ്പിച്ച് അവിടെ ചെമ്പിനകത്ത് ഇട്ടിട്ട് സ്റ്റീൽ ഗ്ലാസ്സ് സ്റ്റീൽ ഗ്ലാസോ സ്റ്റീൽ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോള് ഉപകരണങ്ങൾ അതിനകത്തേക്ക് വെള്ളം നിറച്ച് ജാറിനകത്താക്കി അത് കൊടുക്കുന്നതായിരിക്കും അതിലും നല്ലത് ഈയിടെ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്ല്യാണമുണ്ടായിരുന്നു ഞങ്ങള് അതനുസരിച്ച് ഞങ്ങള് ഇതുപോലെ ഞങ്ങള്ക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് വേറെങ്ങും തേടി പോകണ്ട അപ്പോള് ഞങ്ങള് വലിയ ചെമ്പിനകത്ത് തിളപ്പിച്ച് പതിമുഖമൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ വലിയ പാത്രങ്ങളിലാക്കി ഗ്ലാസ്സുകളിൽ സ്റ്റീൽ ഗ്ലാസ്സില് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ആവശ്യമായ ജാറിനകത്ത് കൊടുത്തിട്ട് അവര് ഒരോരുത്തരും ഗ്ലാസ്സിലൊഴിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്ലാസ്റ്റിക്ക് അല്ലാത്തപക്ഷം നമ്മള് വലിയ ഒരു വലിയ വലിയ ഒരു ഡിഷിനകത്തോ വല്ലതും ആക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്കിപ്പോള് ചെറിയ അതിനപ്പ് ഒത്തിരി കുപ്പികളൊന്നും ഉപയോഗിക്കാതെ ചെറിയ വലിയ ഒരെണ്ണെത്തിനകത്ത് എടുത്തിട്ട് പിന്നെ ഗ്ലാസ്സിനകത്ത് ഊറ്റി കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഉത്തമം അപ്പോള് ഒത്തിരി പ്ലാസ്റ്റിക് നമ്മളിപ്പോള് ഉപയോഗ ശൂന്യമാക്കാതെ നമ്മുടെ പ്രകൃതിക്ക് മണ്ണിനകത്ത് കുഴിച്ചുമൂടി ഇടാനും വേസ്റ്റാക്കി കളയാനും ഒന്നും പറ്റുന്ന് കൊള്ളം കൊള്ളാത്ത സാഹചര്യമല്ലേ ഇപ്പോള് പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കണോ എന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത് അപ്പോള് എല്ലാവരും തന്നെ ഞങ്ങളുടെ അടുത്തുള്ളവരും അയൽവക്കക്കാരും എല്ലാവരും ഇങ്ങനെ തന്നെ ഇപ്പോള് പ്രവർത്തിച്ച് വരുന്നുണ്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ കൊടുക്കുന്ന രീതി പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് അങ്ങനെ വെള്ളം തിളപ്പിക്ക് ച്ച് കുടിക്കുന്നു നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നത് അല്ലാതെ ഇത്രയും